ഹലോ സാർ ഞാൻ സാറിൻ്റെ സിനിമയിൽ റോളിനു വേണ്ടി വന്നതാണ് എൻ്റെ പേര് ഷഹനാസ് നോ സർ ഇല്ല ഓക്കെ സാർ ഓക്കെ സാർ യാ ഷഹനാസ് സാർ യാ ആ ഓ ഞാൻ ഒരു ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ചാൻസ് കിട്ടിയിട്ടില്ല ട്രൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ സാർ ഓക്കെ സാർ ഞാൻ അല്ലാതെ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ പോയിട്ടുണ്ട് ഈ മറ്റേ നമ്മുടെ ഈ മറ്റേ വില്ലൻ്റെ റോളൊക്കെ ആയിട്ട് അങ്ങനെ പോകത്തില്ലയോ സിനിമയിൽ അങ്ങനെ പോയിട്ടുണ്ട് എന്നു വച്ചാൽ ആ ഓക്കെ സാർ ഓക്കെ സാർ ഓക്കെ സാർ ഞാൻ നോക്കാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സാർ പിന്നെ സാറിൻ്റെ സിനിമ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് കേട്ടോ കണ്ടിട്ടുണ്ട് കേട്ടോ സാറ് സാറ് ഈ ഇടയ്ക്ക് ചെയ്ത ലിയോ സിനിമയില്ലേ വിജയുടെ അതൊക്കെ കൊള്ളാമായിരുന്നു നല്ലതായിരുന്നു നല്ല സൂപ്പറ് സിനിമ ആയിരുന്നു അത് പിന്നെ നമ്മുടെ ശിവ കാർത്തികേയനെ വച്ച് ചെയ്ത സിനിമ അതൊക്കെ സൂപ്പർ ആയിരുന്നു അടുത്തത് ഏത് സിനിമയാണ് സാറേ ഒന്ന് പറയാമോ ഓക്കെ ഓക്കെ സാർ ഓക്കെ സാർ സാർ പിന്നെ എനിക്ക് സിനിമയ്ക്ക് സിനിമയ്ക്ക് റോൾ എന്തെങ്കിലും കിട്ടുമോ ഓ ഓക്കെ സാർ ഓക്കെ സാർ എനിക്ക് സംഭവം റോള് മറ്റേ വില്ലൻ്റെ അല്ല ഹീറോയുടെ ഓ ഓക്കെ സാർ ഓക്കെ സാർ സപ്പോർട്ടിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ആയിട്ട് നിൽക്കുന്ന ഒരാൾ അല്ലയോ ഓക്കെ ഓ ഓക്കെ ഓക്കെ ഓക്കെ മറ്റേ പോക്കിരിരാജ സിനിമയിലെ പോലെ ഈ മറ്റേ പൃഥ്വിരാജിൻ്റെ റോൾ അല്ലയോ ഓക്കെ ഓക്കെ മനസിലായി മനസിലായി അതുകണക്കത്ത റോള് ഓക്കെ സാറേ ഓഡീഷന് ഇല്ല ഞാൻ അങ്ങനെ വലുതായിട്ട് പോയിട്ടില്ല അല്ലാതെ എന്നെ ഫ്രണ്ട് വിളിച്ചു അങ്ങനെയാണ് അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ പോയിട്ടെ ഉള്ളൂ അല്ലാതെ ഞാൻ പോയിട്ടില്ല ആ ഒരു ഓഡീഷന് എങ്ങാണ്ടു പോയിട്ടുണ്ട് ഓ ഒരു എണ്ണത്തിന് എങ്ങാണ്ടു പോയിട്ടുണ്ട് ഒരു വില്ല ഒരു വില്ലനായിട്ട് എങ്ങാണ്ടു അഭിനയിക്കാൻ ഒണ്ട് സാർ ഒണ്ട് സാർ ഞാൻ വാട്സാപ്പിൽ സാറിന് ഞാൻ അയച്ചേക്കാം ഓക്കെ ഓക്കെ സാർ ഓ ഓക്കെ സാർ ഞാൻ വിളിക്കാം വിളിക്കാം വിളിക്കാം സാർ പിന്നെ സാറിൻ്റെ പുതിയ അടുത്ത സിനിമ ഏതെങ്കിലും ഉണ്ടോ ഏതേലും സിനിമയുടെ ഓക്കെ സാർ ഒന്ന് വിളിക്കണേ അതായത് എന്തേലും വില്ലൻ്റെ റോളോ അങ്ങനെ എന്തെങ്കിലും റോളായിട്ട് കിട്ടുവാണേ എന്നെ ഒന്ന്

ഓക്കെ വിസിറ്റിംഗ് കാർഡ് ഓക്കെ ഓക്കെ സാറിൻ്റെ സ്ഥലം ഓക്കെ എവിടെയാണ് സാറിൻ്റെ പേര് ഓ സൗരവ് സാർ അല്ലേ സൗരവ് അല്ലേ ആ സാറിൻ്റെ സിനിമ ഇഷ്ടംപോലെ ഞാൻ കുറേ സിനിമ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മൂന്ന് നാലു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നല്ല നല്ല സിനിമയാണ് എനിക്ക് എല്ലാവരെയും ഇഷ്ട്ടമാണ് സാറിൻ്റെ സിനിമ എനിക്ക് അങ്ങനെ ഓക്കെ സാർ ആഹ് യാ സാർ യാ അതെ അതെ പിന്നെ അതായത് ഇനി അഥവാ എന്തേലും സിനിമയിൽ എന്തേലും റോൾ ഉണ്ടെങ്കിൽ എന്നേ വിളിക്കാവേട്ടോ സാർ ഒന്ന് വിളിക്കണേ ഓക്കെ ഓക്കെ സാർ താങ്ക് യു ഓക്കെ ഓക്കെ അപ്പ ശരി സാർ ശരി സാർ ശരി ഓക്കെ ഓക്കെ